ഹലോ ഇതേ ഞാനെൻ്റെ ഫാദറിൻ്റെ പിന്നെ മരണ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിക്കിടക്കുകയാണേ അപ്പോള് ഇരുപത്തിയഞ്ചേ പത്തിലാണ് മരിച്ചത് അപ്പോള് ഇരുപത്തിയാറേ പത്തെന്നും പറഞ്ഞാണു കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പോള് അതൊന്നു തിരുത്തിത്തരണം അതിനു ഞാനേ ആരെ സമീപിക്കണം എന്താണു ചെയ്യേണ്ടതെന്നെ എനിക്കൊന്നു വിശദമായി പറഞ്ഞുതന്നാല് വലിയ ഉപാകരമായിരിക്കും ഒന്നു സഹായിക്കുമല്ലോ പ്ലീസ് ഒന്ന് സഹായിക്കണം കേട്ടോ ഓക്കെ